തലവേദന മാറ്റാനായി നമ്മുടെ ഗ്രാമത്തിലെ പണ്ട് കാലത്ത് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് കച്ചോലം ഇഞ്ചിയുടെ ആ വർഗത്തിലുള്ള ഒരു സസ്യമാണ് കച്ചോലം ഈ കച്ചോലത്തിൻ്റെ മണ്ണിനടിയിൽ കാണുന്ന ഭാഗം ഇഞ്ചിയുടെ പോലെ ഒരുതരം ഇങ്ങനെ മാംസമായ സോഫ്റ്റായിട്ട് ഒരു ഭാഗമാണ് അതെടുത്ത് കഴുകി നല്ല ചെളിയൊക്കെ കളഞ്ഞിട്ട് നല്ല കല്ലിൽ വെച്ചിട്ടത് ഒരക്കും ഒരച്ചു കഴിയുമ്പോൾ വളരെ സോഫ്റ്റായൊരു പേസ്റ്റ് പോലെ നമുക്കത് കിട്ടും അത് നമ്മൾ നമ്മുടെ തലക്ക് നെറ്റിയിൽ പുരട്ടിയാൽ പണ്ടൊക്കെ തലവേദന പെട്ടന്ന് മാറുമായിരുന്നു അത് തലവേദനക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മരുന്നായിരുന്നു ഈ കച്ചോലം കച്ചോലത്തിൻ്റെ മണം തന്നെ നമ്മുടെ സാധാരണ ഔഷധ പിന്നെ പനിക്കൊക്കെ നല്ലതാണ് അതുതന്നെ പിന്നെ പനിയൊക്കെ വരുമ്പോൾ കച്ചോലത്തിൻ്റെ ഇല ആവി പിടിച്ച് നമ്മുടെ മണപ്പിക്കാറുമുണ്ട് അപ്പോഴും ആ തലവേദന മാറുന്നതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് കച്ചോലം അതുപോലെ തന്നെ പിന്നെ ഉപയോഗിക്കുക ഒരു സാധനമാണ് തുളസിയില തുളസിയില ഇതുപോലെ ഞെരടി കുറച്ച് തുളസിയില ഒരുമിച്ചെടുത്ത് വൃത്തിയാക്കി എടുത്ത് വെള്ളമയം പുരട്ടാതെ അത് ഞെരടി അതിൻ്റെ നീരെടുത്ത് നമ്മുടെ ഒരു പാത്രത്തിലെടുത്തിട്ട് അതിൽ നിന്ന് കൈ വിരലുകൊണ്ട് നമ്മുടെ നെറ്റിയിലും പിന്നെ അത് ചെവിയുടെ പുറകിലും അതുപോലെ തന്നെ കഴുത്തടിയിലും ഒക്കെ വക്കുമ്പോഴെ പെട്ടന്ന് തലവേദന കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ രീതിയിലാണ് പലപ്പോഴും ആ പഴയ കാലത്തൊക്കെ നമ്മുടെ നാട്ടും ഗ്രാമത്തിലുള്ള പ്രായമുള്ള മുതിർന്നവരെ ഇതുപോലുള്ള ചെറിയ മരുന്നുകളൊക്കെ ചെയ്ത് ഇരുന്നത് അതുപോലെ തന്നെ പഴയ ആൾക്കാർ ചെയ്ത ഒരു കാര്യമാണ് ഈ അത് വെള്ളക്ക അതായത് തേങ്ങായുടെ ചെറിയ രൂപത്തിലുള്ള വെള്ളക്ക ചെറുത് നിലത്ത് വീഴുന്നത് അതിൻ്റെ ആ തൊപ്പി പോലുള്ള ഭാഗം കഴിഞ്ഞിട്ട് കളഞ്ഞിട്ട് അത് കല്ലേൽ വെച്ചിട്ട് അതിൻ്റെ ആ ഭാഗം ഒരക്കും നല്ല ഒരച്ച് കഴിയുമ്പോൾ അവിടുന്ന് നല്ല സോഫ്റ്റായിട്ട് ആ പേസ്റ്റ് പോലെ കിട്ടും അത് പലപ്പോഴും മരുന്നായിട്ട് തലവേദനയ്ക്കുള്ള മരുന്നായിട്ട് ഉപയോഗിക്കും പക്ഷേ അതിൻ്റെ ശാസ്ത്രീയമായ വശം ഇപ്പം ഒന്നും നമുക്കറിയത്തില്ലെങ്കിൽ തന്നെയും പഴയ ആൾക്കാർ കൂടുതലും ചെയ്തിരുന്ന ഒരു കാര്യമാണത് നമുക്കിപ്പോൾ കേട്ടാൽ അതിശയമായിട്ട് തോന്നും പക്ഷേ എങ്കിലും പഴയ ആൾക്കാർ വെള്ളക്കായ്ടെ തൊപ്പി കളഞ്ഞതിനു ശേഷം അത് കല്ലേൽ വെച്ചിട്ട് നല്ലപോലെ ഇട്ടിട്ട് ഒരക്കും അപ്പോൾ അതിനകത്ത്ന്ന് ഒരു പേസ്റ്റ് പോലെ സാധനം കിട്ടും അത് നമ്മുടെ നെറ്റിയിൽ പൂശുമ്പോൾ പലപ്പോഴും തലവേദന മാറുന്നതായി കാണാം ഈ ഇങ്ങനെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ ഈ കാര്യങ്ങളൊക്കെയാണ് സാധാരണ തലവേദനയ്ക്കായിട്ട് ചെയ്തിരിക്കുന്നത് പഴയ ആൾക്കാർ നാട്ടിൽ നമ്മുടെ പൂർവികരല്ലെങ്കിൽ പ്രായമായ ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനമായിട്ടും ഏറ്റവും കൂടുതലായിട്ടും ചെയ്ത കാണിക്കുന്നത് കാണിക്കുന്നത് കച്ചോലമാണ് കച്ചോലം കൊണ്ട് പിന്നെ വളരെ പ്രയോജനമുണ്ട് അതൊരു എല്ലാ രോഗങ്ങൾക്കും പറ്റിയ ഒരു മരുന്നാണ് ഈ കച്ചോലം എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ നാട്ടിലത് വളരെ കുറവായിട്ടെ കാണുന്നുള്ളു പക്ഷേ വലിയ ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഈ കച്ചോലം അപ്പോൾ അത് തലവേദനയ്ക്ക് ഏറ്റവും അധികം പഴയകാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു മരുന്നാണ് കച്ചോലം